അത് ആ എത്ര മലയാളത്തിൽ സംസാരിക്കാൻ നോക്കിയാലും എത്ര മലയാളത്തിൽ സംസാരിക്കാൻ നോക്കിയാലും ഇടയ്ക്ക് ഇഗ്ലീഷ് വേഡ് വന്നു കൊണ്ടേയിരിക്കും അല്ല മലയാളം എങ്ങനെ നോക്കിയാലും ഇഗ്ലീഷ് വേഡ് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട് അതും എത്രയും കുറച്ച് മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ നോക്കുന്നുണ്ട് എന്നാലും ഇങ്ങനെയൊക്കെത്തന്നെ കയറി വരുന്നുണ്ട് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ളതാണ് എല്ലാവരും ഇംഗീഷു പഠിക്കാൻ തുടങ്ങിയതിനോടു കൂടിയാണ് മലയാളം ഭാഷ സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇന്ന് ഇഗ്ലീഷിൽ തന്നയേ സംസാരിക്കത്തുള്ളൂ മലയാളം പറഞ്ഞാൽ പോലും മലയാളം പേപ്പറു പോലും വായിക്കാൻ അറിയത്തില്ല എല്ലാവരേയും ഇംഗിഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിക്കുന്നതാണ് പക്ഷെ നമ്മുടെ ഭാഷ മാതൃഭാഷ മലയാളമാണ് അത് പഠിക്കാൻ പറഞ്ഞാൽ ആരും പഠിക്കത്തില്ല എങ്ങനെ നോക്കിയാലും മലയാളം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് ഇഗ്ലീഷ് വേഡ് കയറി വരുന്നുണ്ട്